ചൂടുകാലത്ത് ഇവിടെ മൊരുവെള്ളം ഉണ്ടാക്കാറുണ്ട് പിന്നെ ഈ സംഭാരം ഉണ്ടാക്കാറുണ്ട് നമ്മള് മോരൊക്കെ കടയിൽ നിന്ന് മേടിച്ചിട്ട് തൈരും മോരൊക്കെ കടയിൽ നിന്ന് മേടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക ഈ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയൊക്കെ കാണുമ്പം ഇങ്ങനത്തെ വെള്ളങ്ങളൊക്കെ കൂടിക്കുന്നന്നത് അടിപൊളി ആണ് പിന്നെ ഇടക്ക് ജൂസ് ഒക്കെ അടിച്ച് കുടിക്കാറുണ്ട് ലൈമ് കുടിക്കാറുണ്ട് അങ്ങനത്തെ പാനീയങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ട്